നമ്മളുടെ ഈ പ്രദേശത്ത് വിനോദ സഞ്ചാരികൾക്ക് താമസിക്കാനായിട്ടുള്ള വീടുകളും പിന്നെ ഒരു ഞങ്ങൾക്കിവിടൊരു റിസോട്ടൊണ്ട് പിന്നെ ഒന്ന് രണ്ട് റിസോട്ട്കളുണ്ട് അതിച്ചിരി ദൂരെയാണ് നമ്മുടെ അടുത്ത് തന്നെ ഉള്ളത് നല്ല റിസോർട്ടാണ് അപ്പം എവിടെ ഏത് രാ ഇപ്പം വേറെ പുറം രാജ്യങ്ങളീന്ന് വരുന്നവർക്കാണെങ്കിലും നമ്മുടെയീ പ്രദേശം ഇഷ്ടപ്പെടും അവിടെ അതുപോലെയുള്ള സൗകര്യങ്ങളാണ് റിസോർട്ടിൽ ഒരിക്കിയിരിക്കുന്നത് ഇപ്പോൾ ഒരു പത്ത് പേർ ഒരുമിച്ച് വന്നവിടെ താമസിക്കാനാണെങ്കിലും അവരുടെ ഫാമിലിയോട് കൂടിയാണെങ്കിലും കുട്ടികളൊക്കെയുണ്ടെങ്കിലും അതിനുള്ള സൗകര്യങ്ങൾ അവിടെയുണ്ട് ഇനി ഏ സി വേണ്ടവർക്ക് ഏ സിയും നോണേസിയാണെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ ചിൽഡ്രൻസ് പാർക്ക്കളുണ്ട് വിവിധതരത്തിലുള്ള പക്ഷികളെ അവർ വളർത്തുന്നുണ്ട് പിന്നെ അതുപോലെ പിന്നെ കൗശല നെറഞ്ഞ ഒരു അന്തരീക്ഷം ആണവിടെ മൃഗങ്ങളുമുണ്ട് കൊച്ചു കൊച്ചു മൃഗങ്ങളും പക്ഷികളും ഒക്കെ അവർക്ക് ഇഷ്ടം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള റിസോർട്ടാണ് അവിടുള്ളത് പിന്നെ അവർക്കുള്ള ഫുഡ് അവരേത് തരത്തിലുള്ള ഫുഡാണോ അവരാഗ്രഹിക്കുന്നത് ആ ഫുഡ് അവർക്ക് കൊടുക്കാൻ വേണ്ടി അതിനായിട്ടുള്ള ആൾക്കാരും അവിടെയുണ്ട് അവർ ആവശ്യപ്പെടുന്നത് പോലെയുള്ള ഫുഡ്കൾ അവർക്ക് ചെയ്ത് കൊടുക്കാനുള്ള ആൾക്കാരും ഉണ്ട് പിന്നെ അവർക്ക് അത് കഴിഞ്ഞ് അവിടെ അവിടെ താമസം കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ അവർക്ക് പുറത്തിറങ്ങി നമ്മുടെയീ നാടിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റത്തക്ക രീതിയിലുള്ള സ്ഥലത്താണ് ഈ റിസോട്ട് സ്ഥിതി ചെയ്യുന്നത് അവിടെന്ന് ആ റിസോട്ടീന്ന് ആ വാഹനങ്ങളിൽ അവർക്ക് ഈ സ്ഥലങ്ങളൊക്കെ പോയി കാണാനുള്ള സൗകര്യങ്ങളുണ്ട് അവിടെന്ന് തന്നെ കൊണ്ടുപോയി അതിനവർ സ്പെഷ്യലായിട്ടുള്ള ഒരു പ്രൈസ് വെച്ചിട്ടാണ് അവർക്ക് എവിടെയാണ് പോയി കാണേണ്ടത് അങ്ങനെയുള്ള അവർക്കവിടെ പോയി കാണാൻ സാധിക്കും എല്ലാ സ്ഥലങ്ങളും കാണിച്ച് തിരികെ കൊൺ റിസേർ റിസോട്ടിൽ എത്തിക്കുന്ന ഒരു സംവിധാനം അവിടെയുണ്ട് പിന്നെ കുട്ടികൾക്ക് ആണെങ്കിലും അവിടെ കളിക്കാനുള്ള പാർക്കുകൾ സിമ്മിങ് പൂള്കൾ അങ്ങനെയെല്ലാ എല്ലാ കാര്യങ്ങൾ അവരുടെ ഫുഡിൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാം അവർക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ അങ്ങനെയാണ് അവിടെ സജ്ജമാക്കിയിരിക്കുന്നത് പിന്നെ മലകളും കുന്നുകളും അങ്ങനെ ഒരുപാട് പാടങ്ങൾ ഒരുപാട് മരങ്ങളും അങ്ങനെ ഇഷ്ടം പോലെ സ്ഥലങ്ങളും അവർക്ക് ആ റിസോട്ടിൽ നിന്ന് കാണാൻ സാധിക്കുന്ന തരത്തിലാണ് അവരുടെ അവിടെ അങ്ങനുള്ള സ്ഥലത്താണ് ഈ റിസോട്ട് ഒരിക്കിയിരിക്കുന്നത് അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാരെ ഇങ്ങോട്ട് ആകർഷിക്കുകയും അവർക്ക് അവിടെ അതിനകത്ത് താമസിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ അതിന് അതിനുള്ള ഫെസിലിറ്റീസ് അവർക്കുണ്ട് പിന്നെ റിസോട്ടിലാണെങ്കിലും അവർക്ക് ഒരുപാട് അതിനകത്താണെങ്കിലും ഇൻസൈഡായിട്ട് രാത്രിയിലാണെങ്കിലും ഇരുന്ന് ഇഷ്ടം പോലെ കാര്യങ്ങൾ കളിക്കാനും ക്യാരംസ് അങ്ങനെ ഇൻഡോർ ഗെയിംസ്കളൊക്കെ അതിൽ സജ്ജം സജ്ജമാക്കിയിട്ടുണ്ട് രാത്രിയിലാണെങ്കിലും അവർക്കങ്ങനെ ബോറടിക്കാതെ അവർക്ക് ഈ ഹോം തീയ്യറ്ററും അങ്ങനെയെല്ലാ വക സൗകര്യങ്ങളും കൂടിച്ചേർന്ന് ആണ് അവരുടെ അവർക്കവിടെ ഹോം സ്റ്റേ ഒരിക്കിയിരിക്കുന്നത് പിന്നെ പല വീടുകളിലും അവർക്കിങ്ങനെ ഹോം സ്റ്റേ ചെയ്യാനുള്ള ഒരു അനുവാദം ഇവിടെ ഹോം സ്റ്റേ ഒരുക്കുന്നുണ്ട് വീടുകളിൽ താമസിക്കുന്നവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് അകന്ന് വന്നൊരു ഇത് ഉണ്ടാകാത്ത രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഫുഡാണെങ്കിലും അവരുടെ നമ്മുടെ പ്രദേശത്തെ ഫുഡ് അതായത് ഈ നമ്മുടെ നാടൻ രീതിയിലുള്ള ഫുഡാണെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ അവരുടെ നാട്ടിലുള്ള നാട്ടിലുള്ള ഫുഡാണ് അവർക്കിഷ്ടമെങ്കിൽ അത് അവർ പറയുന്നതനുസരിച്ചുള്ള ഫുഡ് ഇവിടെന്ന് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി എല്ലാവരും സന്നദ്ധരാണ് പിന്നെ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്ക് യൂത്തിനാണെങ്കിലും അവരുടെ ഇഷ്ടപ്പെട്ട കളികളും കായികമായിട്ട് അവർക്കെല്ലാത്തിലും ഏർപ്പെടാനുള്ള സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട്